എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാചക വിധികള് എൻ്റെ അമ്മയിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അമ്മ പഠിപ്പിച്ച് തന്നതൊക്കെയാണ് അത് ഏതൊരു മക്കളെന്നനിലയിലും ഏറ്റവും നല്ല പാചകത്തിലെ ഗുരു അവരുടെ അമ്മയായിരിക്കും കാരണം അമ്മമാരിൽ നിന്ന് അവരുടെ ടിപ്പ്സ് പിന്നെ അമ്മായിയമ്മ അമ്മായിഅമ്മ കണ്ട് പിടിക്കുക കറി വയ്ക്കുന്നത് കണ്ട് പഠിച്ചായിരിക്കും നമ്മള് പലരും പിന്നെയുണ്ടാക്കുക കാരണം നമ്മുടെ ടേസ്റ്റും നമ്മുടെ ഭർത്താവിൻ്റെ ടേസ്റ്റും രണ്ടും രണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഭർത്താവിന് ഇഷ്ടമുള്ളത് അവരുടെ അമ്മ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അമ്മായിയമ്മമാരുടെ അടുത്തുള്ള പാചക വിധികളും കണ്ട് പഠിച്ച് അത് നമ്മുടെ രീതിയിലുണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അവരുണ്ടാക്കുന്ന പോലെയായിരിക്കില്ല അവരുണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റായിരിക്കും കാരണം എൻ്റെ ഹസ്ബന്റിൻ്റെ അമ്മ സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നൊരാളാണ് എൻ്റെ അമ്മയുണ്ടാക്കും അവരുടെ ഫാമിലിയില് അത്യാവശ്യം നല്ല രീതിയില് എല്ലാ ഫുഡും അമ്മ നന്നായിട്ടുണ്ടാക്കും എൻ്റെ വീട്ടിലും ഉണ്ടാക്കും അപ്പോൾ ഹസ്ബന്റിൻ്റെ ആ ഒരു ഇത് അവരുടെ ടേസ്റ്റ് അവർക്ക് അവരുടെ അഛനും അമ്മയും അവരുടെ വീട്ടിൽ ചെന്ന് കഴിക്കുന്ന ആ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അവരുടെ അമ്മയുണ്ടാക്കുന്നത് അപ്പോൾ അവര് പറയും ഇടയ്ക്ക് പറയും അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ കറി ഉണ്ടാക്കുവോ ഈ പിന്നെ പഴുത്ത മാങ്ങ വച്ച് പിന്നെ മാങ്ങാക്കറി ഉണ്ടാക്കുമോയെന്നൊക്കെ ചോദിക്കും അവര് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അമ്മ അമ്മേൻ്റെവിടെ നിന്ന് അവിടെ നിന്ന് കണ്ട് പഠിച്ചത് ഒക്കെയെടുത്തിട്ട് ഇവിടെ വീട്ടിലുണ്ടാക്കും അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവര് കഴിക്കുകയും ചെയ്യും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും അമ്മേന്റിഷ്ടം അമ്മേൻ്റ ഒരു ഇതില് നമ്മള് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവര് നന്നായി ചോറ് കഴിക്കും അല്ലെങ്കില് വലിയ ഇതുണ്ടാവില്ല കൊള്ളാമോ ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളു പക്ഷെ അവര് അവരമ്മേൻ്റെ ഇതില് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചതായി അമ്മയുണ്ടാക്കുന്നപോലെ കറിയുണ്ടാക്ക് എന്ന് പറഞ്ഞ് തരികയാണെങ്കില് അവര് നന്നായിട്ട് അവര് അവര് അവരും കഴിക്കും പിന്നെ കുഞ്ഞുങ്ങളും കഴിക്കും മക്കളൊക്കെ കഴിക്കും